ഇപ്പോൾ മലയാളികൾ അവരുടെ സംസ്കാരവും പാരമ്പര്യവുമൊക്കെ നല്ല രീതിക്കുതന്നെ പുറത്തേക്കുള്ള ആൾക്കാരൊക്കെ എന്താ പറയുക കാണിച്ചു കൊടുക്കുന്നതിനൊക്കെ ആയിട്ട് നല്ല രീതിയിൽതന്നെ ഭാഷ ഉപയോഗിക്കുന്നുണ്ട് കാരണം ഒരു വ്യക്തിയുടെ അടുത്ത് ചെന്നിട്ട് അവർ എങ്ങനെയാണോ സംസാരിക്കേണ്ടത് അതിൻ്റേതായ രീതിയിൽ തന്നെയാണ് അവർ സംസാരിക്കുക മാന്യത ഈ എന്താ പറയുക മാന്യമായ രീതിയിലും അത്യാവശ്യം സ്ഫുടതയും കാര്യങ്ങളൊക്കെ നല്ല രീതിക്കുതന്നെ അവർ കീപ്പ് ചെയ്തികൊണ്ടാണ് ഇപ്പോൾ കൂടുതലായിട്ടും മറ്റുള്ളവരുമായിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഇപ്പം ഒരു വ്യക്തിയിനെ ആദരിക്കാനായാലും എന്താ പറയുക ഒരാളോട് സംസാരിക്കുമ്പോഴും തുടക്കത്തിൽ നമസ്കാരം അങ്ങനെയൊക്കെ സംസാരിക്കുന്നവരാണ് കൂടുതലും മലയാളികളെ നമ്മൾ കണ്ടിട്ടുണ്ടാവുക എവിടെപ്പോയാലും അവരുടേതായൊരു എന്താ പറയുക ഒരു കാഴ്ച്ചപ്പാടുകൾ അവർ നല്ല രീതിക്കുതന്നെ ഭാഷയിലൂടെ പുറത്തേക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് കൂടുതലും മലയാളം ഉപയോഗിക്കുന്നവർ നല്ല സഭ്യമായ രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത് അതുപോലെതന്നെ നല്ല രീതിയ്ക്ക് അവരുടെ സംസ്കാരവും പാരമ്പര്യവും എല്ലാം കാണിക്കാൻ വേണ്ടിയിട്ട് മലയാളം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് കൂടുതലും മലയാളികൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ഭാഷ നല്ലരീതിക്കുതന്നെ അവർ ഉപയോഗിച്ചതുകൊണ്ട് അവരുടെ പാരമ്പര്യം നല്ല രീതിക്കുതന്നെ ഉയർത്തി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്